സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ മലയാളം ആയിരുന്നു കാരണം പ്രൈമറി ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ടു തന്നെ മലയാളം ആയിരുന്നു കൂടുതൽ ഇഷ്ടപെടുന്നത് മലയാളത്തിലെ കവിതകൾ കഥകൾ എന്നിവ ഇഷ്ടമായതുകൊണ്ടു തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് മലയാളമായിരുന്നു പിന്നെ ഒന്നുള്ളത് കെമിസ്ട്രി അതുപോലെ ഫിസിക്സ് ഇതിൽ രണ്ടിലും നമുക്ക് സയൻറിഫിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങള് ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ കുറെ കൗതുകകരമായ കാര്യങ്ങള് ഉള്ളതുകൊണ്ട് ഫിസിക്സും കെമസ്ട്രീയും ഭ ഇഷ്ടമാണ് എന്നാലും ഏറ്റവും കൂടുതലിഷ്ടം മലയാളം മലയാളം തന്നെയായിരുന്നു മലയാളത്തില് കൂടുതൽ കഥകളിഷ്ടമാണ് കഥകള് വായിക്കാനിഷ്ടമാണ് മലയാളത്തില് ബുക്കുകള് വായിക്കാനിഷ്ടമാണ് മലയാളത്തിൽ കവിതകളും എല്ലാം തന്നെ ഉപരി എനിക്ക് മലയാളത്തിലെ കഥകള് ഏറ്റവും കൂടുതല് വായിക്കാനിഷ്ടമാണ് അതുകൊണ്ടു തന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാലഘട്ടത്തില് മലയാളം മലയാളം തന്നെയാണ് ഏറ്റവും കൂടുതലിഷ്ടം അതു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫിസിക്സും കെമിസ്ട്രിയും കാരണം അതില് നമുക്ക് കൗ ശാസ്ത്രപരമായ കൗതുകങ്ങൾ ഉള്ളതു കൊണ്ടു തന്നെ അത് ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാമാണെനിക്ക് ഇഷ്ടപെട്ടത്